സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളെ കുറിച്ച് ചി തീർച്ചയായും നമ്മൾ സംസാര വിഷയമായിട്ടുണ്ട് ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുമുണ്ട് നമ്മൾ സുഹൃത്തുക്കളായും ബന്ധുക്കാരായും വീട്ടുകാരായിട്ടും ഏർപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ജീവിക്കുന്ന രാജ്യത്ത് നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമാണ് ദാരിദ്ര്യമായാലും പഠിപ്പിനെക്കുറിച്ചായാലും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൽ കുറേ കുറേ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വിസമ്മതിക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് അർഹയല്ല എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴും കുറേ മാതാപിതാക്കളുടെ കാഴ്ച്ചപാട് എന്നാൽ ആണുങ്ങൾക്ക് വിദ്യാഭ്യാസം ആവശ്യമെന്നുള്ള രീതിയിൽ സത്യം പറയുകയാണെങ്കിൽ ഏതൊരു ജെൻഡർ ആണെങ്കിലും അവർക്ക് രണ്ട് പേർക്കും വിദ്യാഭ്യാസം എന്നു പറയുന്ന സാധനം ആവശ്യകരമാണ് പിന്നെ ദാരിദ്യ്രം നമ്മുടെ രാജ്യത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് പേരുടെ കയ്യിൽ കുറേ പണമുണ്ടെങ്കിലും അത് പോലെ തന്നെ കുറേ പേരുണ്ടാകും ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി നടക്കുന്നവർ അപ്പം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഒരു ബാലൻസ് ആയിട്ടല്ല പോവുന്നത് കുറേ പണമുള്ളവർ എന്നാൽ കുറേ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളും ഉണ്ട് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്ന വിഷയം ധാരാളമുണ്ട് എല്ലാ വിഷയങ്ങളും എപ്പോഴും ചർച്ചയിൽ വരുന്നത് തന്നെയാണ്